ബ്രോക്കർ അല്ലേ ആ ഞാൻ ടെക്നോ കെമിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണേ ആ ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് കോഴിക്കോടിലോട്ട് വരുവാണ് ഒരു വൺ ഇയറിലോട്ട് റെന്റിന്റെ ഹൗസ് വേണമായിരുന്നു കിട്ടുവോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ അതെ അതെ അപ്പം വൺ ഇയറിലോട്ട് റെന്റിന് വല്ല ഹൗസും കിട്ടാൻ വഴിയുണ്ടോ

ആ ആ ആ ആ കോഴിക്കോട് എവിടെ ആയിട്ടാണ് വരിക ആ ആ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആവുംമ്പോഴത്തേനും ഞാൻ അങ്ങോട്ടേക്ക് വരുവായിരിക്കും നെക്സ്റ്റ് വീക്ക് ആ

ആ ആ ആ ലിവിങ് റൂം അ അ ആ അറ്റാച്ച്ഡ് ബാത്റൂം ആണോ ആ ആ ആ ആ ഫോട്ടോസ് വേണായ് ആ അതെ അതെ ആ അത് ഇ അറിയുന്ന കസ്റ്റഡിയിൽ വേറെ വീട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന്റെ ഫോട്ടോ കൂടെ ഒന്ന് വാട്സപ്പ് ചെയ്തേക്ക് കേട്ടോ ആ ആയിക്കോട്ടെ ഓക്കേ ഓക്കേ ഞാൻ നോക്കിയിട്ട് പറയാമേ എന്തായാലും വാട്സപ്പ് ചെയ്തിട്ടേക്ക് ഇല്ലാ കുഴപ്പമില്ല പ്രശ്നം ഇല്ല ഇല്ല ഇല്ല ഇല്ല എന്തായാലും നിങ്ങൾ ഫോട്ടോ വാട്സപ്പ് ചെയ്തേക്ക് നോക്കിയിട്ട് പറയാം ആ ആയിക്കോട്ടെ